കുറേ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു ഫോൺ വേണം ആരുടെ അടുത്തു നിന്നും വേടിക്കാതെ സ്വന്തമായിട്ട് ഞാൻ അദ്ധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസക്കൊരു ഫോൺ മേടിക്കണമെന്ന് ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഷോപ്പിൽ പോയി ഏതാണ് നല്ല മൊബൈൽ സെറ്റ് ഉള്ളതെന്ന് നോക്കി നോക്കിയിട്ട് മേടിക്കാം എന്നു കരുതി ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഫോൺ മേടിക്കാനായി മൊബൈൽ ഷോപ്പിലേക്ക് പോയി അങ്ങനെ അവരവിടുന്ന് ഒരുപാട് തരം മൊബൈൽ ഫോണുകളെ കുറിച്ച് പറഞ്ഞ് തരുകയും കാണിച്ച് തരുകയും ഒക്കെ ചെയ്തു വിവോ റെഡ്മി ആ ഓപ്പോ അങ്ങനെയുള്ള കുറേ ഫോണുകളെ കുറിച്ച് പാ പറഞ്ഞ് തരുകയും പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഞാൻ മേടിച്ചത് റെഡ്മിയാണ് റെഡ്മി ഫൈവ്ജിയാണ് ഫോൺ അങ്ങനെ ആ ഫോൺ മേടിക്കാമെന്നു കരുതി അങ്ങനെ അത് മേടിച്ച് വീട്ടിൽ എത്തി വീട്ടിൽ എത്തി ഫോൺ യൂസ് ചെയ്തു നോക്കുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ് നല്ല സ്മൂത്തിങ്ങുള്ള ഒരു ഫോണായിരുന്നു ഒരാഴ്ച രണ്ടാഴ്ച ഉപയോഗിച്ചപ്പോൾ നല്ല ഫോണായിരുന്നു പിന്നെ ഒരാഴ്ചത്തെ ഒരു വർഷത്തെ വാറന്റി ഒക്കെ തന്നിരുന്നു എന്തെങ്കിലും അപ്പോൾ എന്തെങ്കിലും ഡിസ്പ്ലേ പോകുകയോ നിലത്ത് വീഴുകയോ ചെയ്താൽ അവർ വേറെ മാറ്റിത്തരും പുതിയതായിട്ട് ഇട്ട് തരുമെന്നതൊക്കെ പറഞ്ഞു അതുകൊണ്ടു തന്നെ നല്ലൊരു ഫോണായിരുന്നു ഇത് നല്ലൊരു ഹെല്പ്ഫുള്ളായിട്ടുള്ള ഒരു ഫോണായിരുന്നു എല്ലാം ഒരുപാട് നല്ല ക്യാമറ ആണെങ്കിലും നല്ല വഹ് ക്ലിയറുള്ള ക്യാമറയൊക്കെ ആയിരുന്നു ഇതിന്